പാലക്കാട് ജില്ലയിൽ നമ്മുടെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണ് എന്ന് പറയുമ്പോൾ പല നമുക്ക് സത്യം പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ ആശുപത്രികൾ കുറവാണെന്നുള്ളൊരു പൊതുവെ നമുക്ക് പറയാം ആശുപത്രി കുറവാണെന്നു പറയുമ്പോൾ രാത്രിലെ കിടത്തി ചികിത്സ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പാലക്കാട് ജില്ലയിൽ കുറവാണ് ജില്ലാ ആശുപത്രികൾ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രിലാണ് പിന്നെ നമുക്ക് കിടത്തി ചികിത്സ ഉണ്ടാവുക സർക്കാരിൻ്റെ ജില്ലാ ആശുപത്രിലും മെഡിക്കൽ കോളേജിലും മാത്രമേ പിന്നെ പൊതുവായിട്ടുണ്ടാവുകയു ള്ളൂ അല്ലെങ്കിൽ പിന്നെ താലൂക്ക് ആശുപത്രി എന്നു പറയാനായിട്ട് ഒരു നാലഞ്ചെണ്ണം ഉണ്ടാവും അവിടെയും ഉണ്ട് പക്ഷെ നമുക്കെന്താ പറയുക പൊതുവായിട്ട് അങ്ങോട്ടെത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഇപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങൾ ഉൾനാടുകളിൽ നിന്നൊക്കെ ആൾക്കാരെ പെട്ടന്ന് രോഗികളെ അങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളുടെയൊരു പോരായ്മ നമുക്ക് തീർച്ചയായും നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്താ പറയുക കാണപ്പെടുന്നുണ്ട് പക്ഷെ അതിനു പുറമെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് മേഖല നോക്കുകയാണെന്നു പറയുമ്പോൾ കുറേ പ്രദേശത്ത് ഇപ്പോൾ അടുത്തടുത്തുതന്നെ ഇപ്പോൾ നമ്മുടെ കല്ലേക്കാട് പോലെ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ കല്ലേക്കാട് അങ്ങനെത്തെ കുറേ ഹോസ്പിറ്റലുകളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവിടെ രാത്രി കിടത്തി ചികിത്സയും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ എന്താ ബുദ്ധിമുട്ട് അവിടെ പ്രൈവറ്റ് ആയതു കാരണം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ചെന്ന് കേറിപ്പറ്റാൻ അതായത് ചെന്ന് നമ്മുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങള് ചെയ്യാൻ പറ്റില്ല പൈസേൻ്റെ പ്രശ്നനങ്ങൾ നമ്മള് പൊതു ഗ്രാമപ്രദേശങ്ങളായതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടന്ന് അന്നന്നത്തെ വരുമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കൂടുതലായിട്ടുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ എമൗണ്ട് ബില്ലിൻ്റെ പൈസ അങ്ങനത്തെ പ്രശ്നങ്ങള് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുതന്നെ അപ്പോൾ അവർ അധികവും പൊതുവേ സർക്കാർ ആശുപത്രിയാണ് കൂടുതലായിട്ടും ആശ്രയിക്കാറ് ആ സമയത്ത് രാത്രികളിലിപ്പോൾ നമ്മുടെ കുറച്ചുകൂടെ ആക്റ്റീവായി രാത്രി കിടത്തി ചികിത്സിക്കാൻ ഒരു പഞ്ചായത്തിലൊരാശുപത്രിക്കെങ്കിലും ഉണ്ട് അങ്ങനെത്തെയൊരു സംവിധാനം ഉണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റീവാണ് പിന്നെ നമ്മുടെ ജില്ലാ ആശുപത്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നു പറയുമ്പോൾ നല്ല ഡോക്ടർമാരും നഴ്സുമാരും കാര്യങ്ങളൊക്കെയുണ്ട് അവിടെ ഏതു നിമിഷം ഏത് നേരത്തും എന്താ പറയുക ഏത് നേരം ചെന്നാലും നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ എന്താണ് ഈ യാത്ര സൗകര്യം അങ്ങനത്തെ ബുദ്ധിമുട്ടുകള് മാത്രമാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്